യോഗ അഭ്യസിക്കുന്നത് നല്ലതിന് നല്ലത് തന്നെ ആണ് പിന്നെ യോഗ ചെയ്യുന്നവർക്ക് അധികം രോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത് യോഗാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ നിലത്ത് ഒരു ചെറിയ പായോ അങ്ങനെ എന്തേലും ഒരു തുണിയോ എന്തേലും വിരിച്ച് നമ്മ നമ്മള് അതിൻ്റെ ചന്ദനപടീട്ട് ഇരുന്ന് ഒരുങ്ങു കൈ കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു എക്സ്സൈസ് പോലെയാണ് ഈ യോഗ യോഗാന്ന് പറയുന്നത് അങ്ങനെ യോഗ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് രോഗങ്ങളെ കുറയ്ക്കുക രോഗങ്ങള് കുറയും എന്നക്കെയാണ് പറയുന്നത് രോഗൊള്ളവർക്കാണെങ്കി യോഗ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ആ രോഗങ്ങൾക്ക് കുറെ രോഗങ്ങള് കുറയുകയും പിന്നെ ശരീരത്തിന് നല്ല ഉന്മേഷവും വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ യോഗ ചെയ്യുന്നത് തന്നെ യോഗ ചെയ്താൽ തന്നെ ശരീരത്തിന് നല്ല വഴക്കവും പ്രായം പ്രായക്കുറവൊക്കെ തോന്നാറൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് വ്യക്തി പരമായ വളർച്ചയ്ക്കും സ്വയം കണ്ടെത്തലിനൊക്കെ യോഗ അഭ്യസിക്കുന്നത് നല്ലത് തന്നെയാണ്